ഞങ്ങളുടെ കുട്ടിക്കാലത്ത് മലയിലൊക്കെ നെല്കൃഷിയൊക്കെ ഉണ്ടാക്കിയിന് നെല്ല് ചോള അണ്ടി എള്ള് ഒക്കെ ഞങ്ങള് ഉണ്ടാക്കി ഇപ്പോള് അങ്ങനൊന്നുമില്ല ഇപ്പോള് മലയിലും എല്ലായിടത്തും വീടുകളും അതും ഇതൊക്കെ ഉണ്ടാക്കി പിന്നെ നാട്ടില് ഞങ്ങള് ഉണ്ടാക്കിയ കൃഷിയൊക്കെ പിന്നെ നോക്കാനൊന്നും ആരുമില്ലാത്തോണ്ട് അതൊക്കെ നിര്ത്തി പിന്നെ പച്ചക്കറികള് ഇപ്പോള് വിഷാംശമുള്ള പച്ചക്കറികളാണ് അന്യ സംസ്ഥാനങ്ങളില് നിന്നൊക്കെ ഇറക്കുമതി ചെയ്യാന് കാരണം എല്ലാം നമ്മുടെ പ്രദേശത്ത് ഭക്ഷ്യവിളകളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാത്തതുകൊണ്ടാണ് കുറച്ചൊക്കെ നമ്മളും കൃഷികളൊക്കെ ചെയ്യാനെങ്കില് നമ്മള്ക്ക് നല്ല സാധനങ്ങളൊക്കെ കഴിക്കാം ചീര വെണ്ട പയര് തക്കാളി പച്ചമുളക് ചീന മുളക് എല്ലതും നമ്മളുണ്ടാക്കിയതാണെങ്കില് നല്ലത് നമ്മള്ക്ക് കഴിക്കാം വിഷാംശമില്ലാത്തത് പിന്നെ ചാണകപ്പൊടിയും വെണ്ണീരും എല്ലതും ഇട്ടുംകാണ്ട് ഉണ്ടാക്കാം പിന്നെ കൂട്ടുകുടുംബങ്ങള് എല്ലാം അണുകുടുംബങ്ങളായി അവര്ക്ക് വീട് വെക്കാനുള്ള സൗകര്യം വയലും പറമ്പുമൊക്കെ നികത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ സ്ഥലങ്ങളുമില്ല അഞ്ച് മക്കളുണ്ടെങ്കില് അഞ്ച് വീടും വേണ്ടേ അപ്പോള് പിന്നെ ആര്ക്കും കൃഷി ചെയ്യാനും ഒന്നിനും സ്ഥലവുമില്ല അഞ്ച് സെന്റിലാവുമ്പോള് ഒരു വീടും വെച്ചാല് സ്ഥലമില്ല കൃഷി ചെയ്യാന് പിന്നെ കവറില് ഇങ്ങനെ ഉണ്ടാക്കുമ്പോള് പച്ചക്കറി വല്ലതും കുട്ടിക്കാലത്തൊക്കെ ഞങ്ങള്ക്ക് മലയില് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആളില്ലാത്തോണ്ട് ഇപ്പോള് അതൊക്കെ നിര്ത്തി